ചെറുപ്പത്തിലേ മൃഗങ്ങളെയൊന്നും വളർത്താറില്ല ഇപ്പോൾ കുറേ ആയിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ നല്ലത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് നല്ല രീതിയിൽ നോക്കണം നമ്മൾ മുട്ടയൊക്കെ നോക്കണം ഒരു സമയം അല്ലെങ്കിൽ കോഴികളൊക്കെ മുട്ടയിടണ സമയത്ത് അത് നല്ല രീതിയിൽ പരിപാലിച്ച് ഒരു പത്തിരുപത്തിനാല് ഇരുപത്തി മൂന്ന് ദിവസമൊക്കെ കഴിയണം ഒരു ദിവസം ജീവിയൊക്കെ ഉണ്ടാവുമ്പോൾ ആടും മാടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ നോക്കണം അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവര് ഈ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പാല് കൊടുക്കുക പാല് കൊടുക്കുക പാല് നമ്മള് എടുക്കുന്ന സമയത്ത് അതവർക്ക് ദോഷമുണ്ടാവുമോയെന്ന് ഉള്ളത് നോക്കണം പിന്നെ നമ്മൾ ആശുപത്രിയിൽനിന്ന് ഡോക്ടറിനെ വരുത്തിയിട്ട് മാസാമാസം കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ നോക്കണം നോക്കിയാലല്ലേ പല കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ നോക്കാറുണ്ടങ്ങനെ കോഴീനെ കോഴിക്ക് മാസത്തിലിങ്ങനെ മരുന്നൊക്കെ കുത്തി വയ്ക്കാറുണ്ട് പശുവിനാണെങ്കിലും ആടിനാണെങ്കിലും പിന്നെ പട്ടിക്കും കുത്തി വയ്ക്കാറുണ്ട് പട്ടീനെ ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ കൊടുക്കാറുണ്ട്